മാതൃഭാഷയിലല്ലാതെ മാതൃഭാഷയിലെക്ക് വിവര്ത്തനം ചെയ്യപ്പെട്ടിട്ട് ഞാന് വായിച്ചു എന്ന് പറയണൊരു നോവലാണ് ഡ്രാക്കുള ബ്രാംസ്റ്റോക്കര് എന്ന് പറയുന്ന ഒരെഴുത്ത്കാരനാണ് എഴുതീരിക്കുന്നത് അത് ഭയങ്കര ഭീകരമായൊരു നോവലുവാണ് ഡ്രാക്കുളേടെ കഥ അതിൽ വിവര്ത്തനം ചെയ്തതിൽ കഥാകാരൻ അതിന്റെയൊരു ഭംഗി പൂര്ണ്ണമായിട്ട് ഉള്ക്കൊണ്ടതായിട്ട് എനിക്കങ്ങനെ കാണാന് സാധിച്ചിട്ടില്ല്യാത് കഥ അത് പുരോഗമിക്കണത് എങ്ങനെയാണന്ന്ച്ചാൽ കത്ത്കളും ഡയറിക്കുറിപ്പ്കളും അവരുടെ കപ്പൽ രേഖകൾ അങ്ങനെയക്കെ അതക്കെയാണ് കൂടുതൽ കഥകളിലിങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നത് അത് നമ്മൾ മലയാളത്തിലേക്ക് വിവര്ത്തനം ചെയ്യുമ്പോൾ അയിങ്ക്ളീഷിൻ്റെ അത്രേം ഭംഗി അതിനുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നീട്ടില്ല പിന്നെ നമ്മുടെ നമ്മുടെ മാതൃഭാഷയിലുള്ളൊരു കഥ വായിക്ക്യാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നോവൽ വായിക്ക്യാന്ന് പറഞ്ഞാൽ ഞാന് കൂടുതൽ പറയാ ആട്ജീവിതം വായിക്കാനാണ് കാരണം അതിലൊരു പ്രവാസി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എത്രത്തോളം സഹിച്ചിട്ടുണ്ടെന്നുള്ളത് അത് എഴുതിയ ആൾ അത്രേം മനോഹരമായിട്ടാണതിൽ അവതരിപ്പിച്ചിരിക്കണത് അത് ആരുടെയുമൊരു ഹൃദയത്തിൽ തൊട്ട് പോണൊരു കഥയാണ് അതെല്ലാവരും വായിക്കണമെന്തായാലും ലോകത്തിലത്തെ ഏതൊരു മനുഷ്യനും വായിക്കേണ്ടൊരു കഥയാണ് ഒരു പ്രവാസി എത്രത്തോളം കഷ്ടപ്പെടാം അതിന്റെ പാരമ്യതയ്ല് അയാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കണ്ണ് നനയാതിരിക്കില്ല്യാ ആ കഥ വായിച്ച് തീരുമ്പോഴത്തേക്കും അത്രയും ഹൃദയസ്പര്ശിനി ആയിട്ടുള്ളോരു കഥയാണ് അതിനാ കഥാകാരനെ നമ്മൾ അപ്പ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്